അമ്പലത്തിൻ്റെ നമ്പൂതിരിയാണോ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അതായത് ഡിസംബർ പതിനാലിന് ഒരു കല്യാണമുണ്ടായിരുന്നേ എൻ്റെ മോളെ കല്യാണമാണ് അപ്പം നമുക്ക് അന്ന് അവിടെ ബുക്ക് ചെയ്യാൻ എന്തെങ്കിലും അവിടെ തിരക്കുണ്ടോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ഡിസംബർ പതിനാല്

ആ അത് നമുക്ക് അവിടുന്ന് വിവ വിവാഹം കഴിച്ച് വിടണമെന്ന് ആയിരുന്നു

ആ ആ മുഹൂർത്തം ഒക്കെ നോക്കി നമുക്ക് ഒരൂ പത്ത് മണി തൊട്ട് പത്തര വരെയാണ് ഞങ്ങ മുഹൂർത്തം ആ ആ ആ ആ ഓക്കെ ആ ആ ആ

ആ ആ ആ ഓക്കെ ആ ബാക്കി നമ്മൾ കൊണ്ടുവരണം അല്ലേ ബൊക്കെയും മാലയൊക്കെ കൊണ്ടുവരണം അല്ലേ നമ്മൾ താലിയൊക്കെ നമ്മൾ നേരത്തെ പൂജിക്കാൻ വേണ്ടി കൊണ്ടുത്തരണോ കൊണ്ടുത്തരണം അല്ലേ ആ ഓക്കെ ആ നമുക്ക് അതായത് രജിസ്ട്രേഷൻ ഒക്കെ അവിടുന്ന് തന്നെയാണോ അവിടുന്ന് തന്നെയാണല്ലേ അതിനാണല്ലേ ആധാറൊക്കെ അപ്പോൾ നമുക്ക് സാക്ഷി കാര്യങ്ങളെന്തെങ്കിലും വേണോ അപ്പോൾ നമ്മുടെ ആധാർ എന്തെങ്കിലും എടുക്കണോ വേണ്ടല്ലേ ആ ഹാ ഓക്കെ നമ്മൾ അതായത് നമുക്ക് അവിടെ നമ്മളൊരു നൂറ് പേരുണ്ട് അപ്പോൾ നൂറ് പേർക്കൊക്കെ വന്ന് നിൽക്കാനുള്ളൊരു ഇതില്ലേ അവിടെ ആണോ ആ ആ അപ്പോൾ നമ്മൾ ആ ഉണ്ടല്ലേ അപ്പോൾ മണ്ഡപമൊക്കെ മ്മൾ തന്നെ വന്ന് അലങ്കരിക്കണോ അതോ പിന്നെ നിങ്ങൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ടാവുവോ ആ നമുക്ക് ചെയ്യാം അല്ലേ ആ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ആ ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ അന്ന് ഞങ്ങൾ ആ അന്നത്തേക്ക് ഒന്ന് ബുക്ക് ചെയ്ത് വയ്ക്കണം കേട്ടോ ആ ആ പതിനാല് ഡിസംബർ പതിനാല് ആണേ ആ ഓക്കെ ഞങ്ങളതിന് മുന്നെയൊന്ന് അങ്ങോട്ട് വരാം ആ ആ ഓക്കെ ഓക്കെ ശരി എന്നാൽ